കോഴി വ്യാപാരത്തിൽ ആളുകള് പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്ന ചില ആ പ്രശ്നങ്ങള് അല്ലെങ്കില് വെല്ലുവിളികള് എന്നുപറയുന്നത് എന്താണ് കൃത്യമായ രീതിയില് ആ എന്താണ് മാ മാര്ക്കറ്റില് പ്രൈസ് അറിയാതിരിക്കുക പിന്നെ ചില സമയങ്ങളിൽ എന്താണ് ആ അവർക്ക് അതിൻ്റെ തായിട്ടുള്ള രീതിയില് ലാഭം കിട്ടാതെ വരുന്ന ഒരവസ്ഥ അത് എന്താണ് പ്രധാനമായിട്ടും കോഴി വ്യാപാരത്തില് എന്താണ് അനുഭവിക്കുന്ന പ്രശ്നമാണ് ചിലപ്പോൾ വള കോഴിയുടെ വിലയൊക്കെ വളരെ താഴ്ന്ന രീതിയില് പോവുകയും ചെയ്യും പിന്നെ എന്താണ് കോഴികൾക്ക് ഒക്കെ പിടിപ്പെടുന്ന അസുഖങ്ങള് അത് അവര് അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ്